എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഗ്യാസ് ഒക്കെ തീർന്ന് പോയിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ചായ വെക്കാനും ഇപ്പം എന്തേലും കറി വെക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഉപയോഗമാണ് ഇത് കൊണ്ടുള്ളത് കാരണം നമ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിന് ഒക്കെ ഭയങ്കര വിലയായിട്ടാണ് വരുന്നത് അപ്പം കറൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചായ വെക്കാനും ഇപ്പം ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീർന്ന് പോയി അപ്പോൾ വേറെ മാർഗ്ഗങ്ങൾ ഒന്നുമില്ല നമ്മൾ എന്തെയ്യാ പെട്ടെന്ന് ഒരു ഗ്യാസ് ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് ചായയും കാര്യങ്ങളും ഒക്കെ വെക്കുക പെട്ടെന്ന് ഒരാൾ കയറിവന്നാൽ എളുപ്പം നമുക്ക് ഇൻഡക്ഷൻ കുക്കറാണ് ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഇപ്പോൾ ഗ്യാസ് അവൈലബിൾ അല്ലല്ലോ നമ്മൾ അത് ബുക്ക് ചെയ്ത് അയിൻ്റെ കുറെ കാര്യങ്ങൾ ഒക്കെ ബുക്ക് കാര്യങ്ങൾ ഒക്കെ എടുത്താൽ മാത്രമൊക്കെ ഗ്യാസ് കാര്യങ്ങൾ ഒക്കെ കിട്ടോളൂ അപ്പം ഇത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ഇപ്പം നമ്മുടെ റൂമിൽ വെക്കാം അടുക്കളയിൽ വേണമെങ്കിൽ അടുക്കളയിൽ വെക്കാം അങ്ങനത്തെ വിഷയങ്ങൾ ഒന്നുമില്ല എ എവിടെവേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ അപ്പോൾ നമുക്ക് എന്തേലും കറിയോ എന്തേലും ഒക്കെ വെക്കാനും നമുക്ക് എളുപ്പമാണ് ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമേ വെക്കാൻ പറ്റോളു പിന്നെ അലുമിനിയം പത്രങ്ങളിലൊന്നും വെക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് എനിക്ക് തോന്നുന്നു പിന്നെ എന്ത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറൻറ്റ് ചാർജ് ഭയങ്കര കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ചൂട് നിൽക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് കറൻറ്റ് ചാർജ് ഭയങ്കര കൂടുതലാണ് ഈ രണ്ട് നെഗറ്റീവ് ആണ് എനിക്ക് ഇതിന് പറയാൻ ഉള്ളത്